എനിക്ക് കുക്കറി ഷോകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ലക്ഷ്മി നായറിൻ്റെ പരിപാടിയില് അവര് കുക്കിംഗ് ഒക്കെ ചെയ്യും അതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പിന്നെ മമ്മാസ് കിച്ചൻ അതിലൊര് അമ്മയും മോളുമാണ് അവരും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ ഒത്തിരി പേരുണ്ട് കുറേ നല്ല നല്ല കുക്കറി ഷോസ് സിമ്പിൾ ആയിട്ട് എങ്ങനെ എന്തുണ്ടാക്കാമെന്നുള്ളത് അമ്മച്ചീൻ്റെ അച്ചാറ് അം പിന്നെ അതേപോലെത്തന്നെ തമിഴിലെ ഒരു ആൾക്കാരുണ്ട് ഒരു കുക്കറി ഷോ കുറേ ആൾക്കാര് കൂടി നിന്നിട്ട് വളരെ നല്ല ഒരു പരിപാടിയാണ് അതൊക്കെ കാണാറുണ്ട് യൂട്യൂബിലാണ് കേട്ടോ കാണുക യൂട്യൂബില് അല്ലങ്കിൽ എഫ് ബിയിലോ ടി വിയില് കാണാം ആനീസ് കിച്ചൻ വേറെ കുക്കറി ഷോ ആദ്യം പ്രോഗ്രാമുണ്ടായിരുന്നു കുക്കറി ഷോൻ്റെ ഇപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല കുക്കറി ഷോൻ്റെ പ്രോഗ്രാം ഒന്നും ഇല്ല ഈ യുട്യൂബിലൊക്കെ കാണുമ്പോൾ നമുക്ക് എളുപ്പമാണ് എങ്ങനെയാണ് കറിയുണ്ടാക്കുന്നത് എങ്ങനെയാണ് ചിക്കൻ ചിക്കൻ ടിക്കാ ചിക്കൻ്റെ വിഭവങ്ങള് പിന്നെ പാലപ്പം എങ്ങനെ ഉണ്ടാക്കാം ഈ സ്റ്റാർട്ടേർസിന് എളുപ്പമാണ് പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ എളുപ്പമാണ് ഞാനതേപോലെ പിന്നെ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേ ലക്ഷ്മി നായറിൻ്റെ ഇത് കണ്ടിട്ട് മറ്റേ നമ്മുടെ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നമുക്കെളുപ്പമാണ് ഇതുകൊണ്ട് ഈ പാചകം കണ്ട് നമ്മള് അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്